മ് അഭിമാനപരമായിട്ടുള്ള നേട്ടം എന്നു വെച്ചിട്ടുണ്ടെങ്കില് ഞങ്ങൾ ഒരു വീട് കെട്ടിയത് തന്നെയാണ് അപ്പോൾ ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു രണ്ടു മക്കളുള്ള ഒരു വീട്ടിലായിരുന്നു അപ്പോൾ എൻ്റെ ഹസ്ബന്റിന് നേരെ ഒരു അനിയനാണ് ഉണ്ടായിരുന്നത് അപ്പം അനിയനെന്ന് വെച്ചിട്ടുണ്ടെങ്കില് അതായത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ സമയത്ത് അനിയൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പ ഞങ്ങടെ കല്യാണം കഴിഞ്ഞ ഒരു മൂന്നുവർഷം കഴിഞ്ഞതിനു ശേഷാണ് അനിയൻ്റെ കല്യാണം കഴിഞ്ഞേ അപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വീട് കാര്യങ്ങൾ ഒന്നും അതായത് പെട്ടെന്ന് അപ്പോൾ അവര് വന്ന് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എന്തായാലും മാറേണ്ടവർ ആണല്ലോ അപ്പം അവര് തന്നെയാണല്ലോ വീട്ടിൽ നിക്കേണ്ട അപ്പോൾ ഞങ്ങളെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ലോൺ എടുത്തു അപ്പോൾ ഞങ്ങൾക്ക് പഞ്ചായത്തിന്ന് ഒരു വീട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് നാല് ലക്ഷം രൂപ അപ്പം ബാക്കി ഞങ്ങള് ലോണെടുത്തു ലോണെടുത്ത് ഞങ്ങള് പത്ത് ലക്ഷം രൂപ ലോണെടുത്തു അതും അത്യാവശ്യം നല്ല അടിപൊളി ഞങ്ങൾക്ക് ചെറിയ ഒരു ഓടിട്ട അതായത് വാർപ്പിൻ്റെ മുകളിൽ ഓടിട്ട ഒരു ചെറിയ ഒരു നല്ല ഒരു അടിപൊളി വീടാണ് ഞങ്ങക്ക് ഞങ്ങളുടെ കൊട്ടാരം തന്നെയാന്ന് പറയാം അപ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പം ഏകദേശം അതിൻ്റെ ഒരു കടം ഏകദേശം തീർന്നു അപ്പം ഞാൻ നമ്മള് ലോൺ ഒക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു പതിനായിരം രൂപയേ ഉള്ളൂ ഇനി എന്താന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു വീട് കെട്ടാൻ പറ്റി അത് തന്നെയാണ് എൻ്റെ ഒരു അഭിമാനകരമായ എൻ്റെ മാത്രമല്ല ഞങ്ങളുടെ ഒരു അഭിമാനകരമായിട്ടുള്ള നേട്ടം